ആരോഗ്യപരിപാലനം കൂടുതൽ കാര്യക്ഷമതയാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചറിഞ്ഞാൽ അതുപോലെതന്നെ കൂടുതൽ ഹോസ്പിറ്റലുകൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക അതിപ്പോൾ നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ ആയാലും ആയുർ വേദത്തിൻ്റെ ഹോമിയോ അങ്ങനെ ആയാലും അത് ആ അതൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടീട്ട് കൂടുതൽ ഇതാക്കുക പിന്നെ വന്നിട്ട് ഹോസ്പിറ്റൽ ഫെസിലിറ്റികൾ കൂടുതൽ ഡോക്ടർസിനെ അപ്പോയ്ൻറ് ചെയ്യുക അതുപോലെതന്നെ നേഴ്സുമാര് തന്നെ ആണെങ്കിലും പിന്നെ ആ ഹോസ്പിറ്റലിന് കൊടുക്കുന്ന മരുന്നുകളുടെ വില കുറയ്ക്കാം പിന്നെ അവർക്ക് വേണ്ട സിറിഞ്ചു കാര്യങ്ങൾ വേണ്ടതിൻ്റെയൊക്കെ വില കുറയ്ക്കുക പിന്നെ കിടക്കണ ബെഡ് ബെഡുകളോക്കെ ഇപ്പോൾ കുറച്ചേ ഉള്ളു എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ഒരുരണ്ടുമൂന്നാലെണ്ണം പുതിയതായിട്ട് കൂടുതൽ കൊണ്ടുവരാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെയാണ് ഹോസ്പിറ്റലില് നമ്മൾ കൂടുതൽ പുരോഗതി വരുത്തുന്നത്